ആ വിഭവങ്ങളെന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാ പ്രദേശങ്ങളിലും കാണുന്ന ഭക്ഷണം തന്നെയാണ് ഇവിടെയും ഉള്ളത് ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം ഒന്ന് രണ്ട് പലഹാരങ്ങൾ ആണ് എനിക്കിവിടെ വന്നിട്ട് ഇവിടെ വളരെ വ്യത്യസ്തമായിട്ട് അനുഭവപ്പെട്ടിട്ടുള്ളത് ഒന്നാമത്തെ പ്രഭാത ഭക്ഷണത്തിലുള്ള ഓട്ടുപോള ഓട്ടുപോള എന്നാണ് ഇവിടെ പറയാറുള്ളത് ഞാൻ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പാലഹാരത്തിനെ കുറിച്ച് തന്നെ കേട്ടതും കണ്ടതും രുചിച്ചതും അതിനാവശ്യമുള്ളത് അരി പൊതിർത്ത് വെക്കണം അടുത്ത ദിവസം അരി അരയ്ക്കുമ്പോൾ ചോറ് തേങ്ങ ജീരകം ഉള്ളി ഇതൊക്കെ ചേർത്തിട്ടാണ് അടുത്ത ദിവസം അരി അരയ്ക്കാറ് തലേദിവസം കുതിർത്ത് വെച്ച അരിയാണ് ഇതിന് ഉപയോഗിക്കുന്നത് അരി അരയ്ക്കുമ്പോൾ ഈ പറഞ്ഞ സാധാനങ്ങളൊക്കെ ചേർക്കും എന്നിട്ട് ഇത് എണ്ണ ഉപയോഗിക്കാതെയാണ് ഈ പലഹാരം ഉണ്ടാക്കുന്നത് ഇത് ഓട് എന്ന് പറഞ്ഞൊരു നമ്മളെ ദോശക്കല്ല് പോലെയുള്ള മറ്റൊരു രീതിയിൽ മണ്ണിൻ്റെ ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കാറ് നന്ന രീതിയിൽ കട്ടിയിൽ അതിൻ്റെതായ ഒരു പാകത്തിൽ അരച്ചെടുത്താൽ മാത്രമേ ഈ അപ്പം ഉദ്ദേശിച്ച രീതിയിലുള്ള അപ്പമാവുള്ളൂ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് കുറച്ചും കൂടി കട്ടിയുള്ള ഒരു ടേസ്റ്റ് ഇല്ലാത്ത ഒരു അപ്പമായിട്ട് മാറും അതുകൊണ്ട് തന്നെ ഞാനിതുവരെ അതുണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല ഇവിടെ വീട്ടിൽ അമ്മയാണ് അത് ഉണ്ടാക്കാറ് ഇങ്ങനെ അരച്ച് വെച്ച അതിലേക്ക് ഉപ്പ് അരയ്ക്കുമ്പോൾ ചേർത്ത് കഴിയും അതനുസരിച്ച് പാകപ്പെടുത്തിയിട്ട് ഓട് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ചു കട്ടിയിൽ തന്നെ ഒരു ഒന്ന് രണ്ട് കൈയിലിൻ്റെ ഒരു പാകത്തിൽ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തീ കത്തിച്ചിട്ട് അത് പൊത്തി വെക്കും ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ അത് വെന്തു കഴിഞ്ഞിട്ടുണ്ടാകും അപ്പഴേക്ക് അത് നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ടാകും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ് അത് ചട്ടിയിൽ നിന്ന് അടർത്തിയെടുക്കാനും ചെറിയ ഒരു നല്ല രീതിയിലുള്ള ഒരു അറിയുന്ന ഒരാൾക്ക് മാത്രമേ അതിൽ നിന്ന് എടുക്കാനും പറ്റുള്ളൂ കാരണം ഇത് എണ്ണ ഇല്ലാത്ത കൊണ്ട് അതിൻ്റകത്ത് ഒട്ടി ചേർന്നിട്ടാ ഉണ്ടാവുക ചട്ടിയിൽ അടിഭാഗം മുകളിലത്തെ ഭാഗമൊക്കെ നല്ല മാർദ്ദവമുള്ള ഭാഗമായിട്ടുണ്ടാകും അത് അതിൽനിന്ന് അടർത്തിയെടുക്കണം എന്നിട്ട് വലിയ അപ്പമായിരിക്കും അതിനെ നാലായിട്ട് മുറിച്ചിട്ടാണ് പാത്രങ്ങളിലിട്ട് കഴിക്കാറ് അതിന് നല്ല ഒരു കറിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത് നല്ലൊരു നല്ലൊരു പലഹാരമാണ് അതിവിടെ ഒരു കാസർഗോഡിൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു പാലഹാരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഒന്നുള്ളൊരു പത്രട എന്ന് പറഞ്ഞ ഒരു പലഹാരം അത് എല്ലാ സമയങ്ങളിലും ഉണ്ടാക്കാറില്ല പ്രധാനമായിട്ടും കർക്കിടക മാസങ്ങളിലാണ് പാരമ്പര്യമായിട്ട് അങ്ങനെയാണ് അത് ഉണ്ടാക്കി വരുന്നത് എല്ലാ സമയത്തും കഴിക്കും നമ്മുടെ കർക്കിടക ചികിത്സ പോലെയുള്ള ആ സമയങ്ങളിലാണ് ശരീരത്തിന് വളരെ ഗുണമുള്ളൊരു ഇതാണ് ഇത് പത്രട ഇതിന് വേണ്ടത് അരി പിന്നെ പലതരം ധാന്യങ്ങൾ പിന്നെ താളിൻ്റെ ഇല ഇതൊക്കെയാണ് ഇത് രണ്ട് ഭാഗായിട്ടാണ് ഉണ്ടാക്കാവുന്നത് ഒന്ന് ഈ അരി കുതിർത്തതിലേക്ക് തേങ്ങയും എല്ലാ ധാന്യങ്ങളും കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ടുണ്ടാകും ആ പയറ് പരിപ്പ് ഇതൊക്കെ അത് ഉലുവ ഇതൊക്കെ ചേർത്തത് അരി അങ്ങനെ അരച്ച് ഒന്നിച്ച് അരച്ചിട്ട് ഒരു പാകമാക്കിയിട്ട് അവിടെ വെക്കും അതിലേക്ക് ഈ താളിൻ്റെ ഇല മുറിച്ച് മാറ്റിവെയ്ക്കണം അത് ഇതിൻ്റെകത്ത് ചേർക്കാനുള്ളതാണ് എന്നിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യും താളിൻ്റെ ഇല നേരിയ രീതിയില് മുറിച്ചിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ആവിയിൽ വേവിക്കും ആവിയിൽ വേവിച്ചിട്ടിട്ട് നല്ല നല്ല വെന്തതിന് ശേഷം ഇത് മുറിച്ചു ഇതിലേക്ക് ഒരു കറി പോലെ മറ്റുള്ള പച്ച മുള പച്ച മുളകല്ല ചുവന്ന മുളകും മല്ലിയും തേങ്ങയും ഇതൊക്കെ അരച്ചിട്ട് ഒരു കറിയുടെ രൂപത്തിൽ ആക്കിയിട്ട് അത് വേവിച്ച് വെക്കും അതിലേക്ക് ഈ നമ്മളെ ആദ്യം വേവിച്ച് വെച്ച പത്രടയുടെ അപ്പത്തിൻ്റെ ഭാഗം അത് വലിയ രീതിയിലുള്ള പീസുകളായിട്ട് മുറിച്ച് അതിൻ്റെകത്ത് ഇട്ട് എല്ലാം കൂടി ഒന്ന് തിളപ്പിക്കും പിന്നെ നമ്മൾ കടുക് താളിക്കും ഇതിലേക്ക് വളരെ വളരെ ആരോഗ്യപരവും ടേസ്റ്റി ആയിട്ടൊള്ളൊരു ഭക്ഷണമാണ് വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണം കൂടിയാണ് ഇത് ഇതൊക്കെ നമ്മളെ ഇന്ന് നമ്മള് കഴിക്കുന്ന മറ്റുള്ള ഭക്ഷണങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ എന്താ വളരെ ശരീരത്തിന് അത്യാവശ്യമുള്ളതും ആ രുചികരവുമായിട്ടുള്ള ഒരു ഭക്ഷണമായിട്ടാണ് എനിക്ക് ഈ പത്രട എന്ന് തോന്നിയിട്ടുള്ളത് പിന്നെ രാവിലെ കഴിക്കുന്ന പോലത്തെ തന്നെ ഉള്ള കടുമ്പ് അത് നമ്മളെ അരിയരച്ചിട്ടുള്ള ഒരു ഇതാണ് ഇതുപോലെ തന്നെ തേങ്ങ ഒക്കെ കൂട്ടിയിട്ട് അരി അരച്ചിട്ട് കട്ടിയിലരച്ചിട്ട് നല്ല ഉരുളകളാക്കിയിട്ട് ആവിയിൽ വേവിക്കുന്നത് അതും വളരെ വ്യത്യസ്തമായിട്ട് പാരമ്പര്യമായിട്ട് കഴിച്ചു വരുന്ന ഒരു അപ്പത്തിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു പലഹാരം തന്നെയാണ്